ഇന്ന് നമ്മുടെ ഡെ ഇത് ഡെയ്ലി ലൈഫില് അതായത് എല്ലാ സാധാരണ ഒരു മനുഷ്യന് എന്ത്കൊണ്ടും വിദ്യാഭ്യാസം വേണം കാരണം ജീവിക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം ഞാൻ എന്ത്കൊണ്ടും പറയുകയാണ് മക്കളെ പഠിച്ചില്ലെങ്കിലൊന്നും നേടാൻ പറ്റത്തില്ല വിദ്യാഭ്യാസമില്ലെങ്കിൽ ഒരു കാര്യമില്ല ഇങ്ങനെ അതായത് മിനിമം ഒരു ജോലി കിട്ടണമെങ്കിൽ പോലും വിദ്യാഭ്യാസം അതായത് പ്ലസ് ടു വെരെയെങ്കിലും ക്വാളിഫൈ ആയിരിക്കണം അത്പോലെ തന്നെ ഇപ്പത്തന്നെ ഇപ്പഴത്തെ കാലഘട്ടത്തില് പ്ലസ് ടു ഒന്നും ഒന്നുമല്ല എത്ര പഠിച്ചാലും ജോലി കിട്ടുന്നില്ല ആളു ഡിഗ്രി എം സി എ എം ബി എ എന്ത് പഠിച്ചിട്ടും ഇവിടെ ജോലി കിട്ടുന്നില്ല വിദ്യാഭ്യാസം അനിവാര്യമാണ് വിദ്യാഭ്യാസം വേണം കാരണം വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്ക് വേറെ എന്ത് തൊഴിലാണ് കിട്ടുന്നത് കാരണം അത്രയ്ക്ക് പോപ്പുലാരിറ്റി കുറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് അതായത് അത്രയും ആളുകൾക്ക് തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ കാരണം ഈ ലോകം പട്ടിണിയാവും അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് പിന്നെ ദേ എന്ത് ദിവസവും കൂലിപ്പണി സ്വന്തമായി എന്തേലും തൊഴിൽ അല്ലാതെ എന്ത് ഇതാണുള്ളത് അല്ലാതെ അവർക്കെന്തേലും പറയത്തക്ക നല്ലൊര് ജോലി കിട്ടുമോ വിദ്യാഭ്യാസമില്ലാതൊരു ജോലി കിട്ടൂല അതുപോലെ തന്നെ വിദ്യാഭ്യാസം എത്ര ഉണ്ടേലും ഇപ്പം തന്നെ ഇപ്പഴത്തെ കാലഘട്ടത്തിൽ ജോലി കിട്ടാൻ എന്തോരം വളരെ പാടാണ്